ഇത് വനിത സഹകരണ സംഘം അല്ലേ പാങ്ങോട് ഉള്ളത് ആ ഞാൻ പാങ്ങോട് ഗ്രാമ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ആശാ വർക്കർ ആണ് വിളിക്കുന്നത് ഞാൻ ഇപ്പോൾ വിളിച്ചത് അവിടെ വനിതകൾക്കായിട്ടുള്ള ലോൺ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ആ ഓക്കേ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ല അതൊരുകൂട്ടം വനിതകൾക്ക് വേണ്ടിയാണ് അതായത് ഇവിടെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഒരു ലോൺ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു ഇങ്ങനെ വനിത സഹകരണ സംഘത്തിൽ നിന്നും ലോണ് ലഭ്യം ആവുന്നു വനിതകൾക്ക് വേണ്ടി അതാണ് വിളിച്ചത് ഒരു ആ ഒരു ഇരുപത് പേരോളം വരും

ഓ ഓ ഓക്കേ ഓ അപ്പോൾ ഇരുപത് പേരും ആ ആ അപേക്ഷയിൽ ഒപ്പിടണം അല്ലേ ആ ആ ഇതിപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി സൈൻ ചെയ്താൽ മാത്രം മതിയോ അതെ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ ആ ആ ഓക്കേ ആ അപ്പോൾ ആ അവിടെ ഒരാൾ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം അല്ലെങ്കിൽ ഈ ഈ പാങ്ങോട് വനിത സഹകരണ സംഘത്തിൽ തന്നെ വേണോ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതെ വേറെ ഏതെങ്കിലും സഹകരണ സംഘത്തിൽ എടുത്താലും മതിയോ ആ ആ ഇതിപ്പോൾ വലിയ രീതിയിലുള്ള ബിസിനസ്സ് ഒന്നും അല്ല ഒരു ചെറിയ ഒരു അച്ചാർ യൂണിറ്റ് തുടങ്ങാനാണ് ആ ആ ഓക്കേ ഓക്കേ അപ്പോൾ എങ്ങനെയാണിവിടെ അവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെ ആണ് ആ ആ ഓക്കേ ഓക്കേ യാ ഇതിപ്പം ആ എടുക്കുന്ന മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുടെ ആധാറ് മാത്രം പോരെ അല്ലാതെ ഈ ലോണിന് അപേക്ഷിക്കുന്ന ആ ഇത്രയും പേര് ഉണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം വേണ്ടല്ലോ ആ ആ ഓക്കേ ഓക്കേ അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഒരു വനിത സഹകരണ സംഘം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇത് അല്ലാതെ വേറെ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നതും ആയിട്ട് ബന്ധപ്പെട്ട് ആ ആ ഓക്കേ അപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ അല്ലാതെ ചെയ്യണം അല്ലേ ആ ആ ആ ഓക്കേ ഓക്കേ

ഓക്കേ മറ്റൊന്നും ഇല്ല ഇത് അറിയാനാണ് വിളിച്ചത് ശരി